ഗ്രാമങ്ങളിലും ക്രിക്കറ്റ് ഫുട്ബോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ട് കളിക്കുക എൻ്റെ ഗ്രാമത്തിൽ ഫുട്ബോളാണ് കളിക്കാറ് കാരണം ഞാൻ പറഞ്ഞില്ലേ ഫുട്ബോള് എന്ന് വെച്ചാൽ ഒരു കളി കളിയാണ് നമ്മുടെ വികാരമാണ് മാസ്സിലായില്ലേ എവിടെ ഏത് ചെറിയ കൊച്ചിനോട് ചോദിച്ചാലും ഫുഡ്ബോളിക്കാരാന്ന് പറയും കാരണം അത്രയും ടൈറ്റ് അല്ലെങ്കിൽ അത്രയും ഇഷ്ടപ്പെടുന്ന കളി അത്രത്തോളം മുന്നിലിരിന്ന ആൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുളൂ മനസ്സിലായോ അത്രേയുള്ളൂ ഫുട്ബോൾ ആണ് ഫുട്ബോളും ക്രിക്കറ്റും ആണ് മെയിൻ കളിക്കുക ഫുട്ബോൾ ആണ് എപ്പോഴും എനിക്ക് ഏറ്റവും താല്പര്യം ഫുട്ബോൾ കളിക്കാൻ ആണ് അതേ ഞാൻ സപ്പോർട്ടും ചെയ്യുള്ളൂ വേറൊന്നും സപ്പോർട്ട് ചെയ്യില്ല